ദക്ഷിണേന്ത്യൻ പലഹാരങ്ങളോടാണ് എനിക്ക് താല്പര്യം കാരണം ഞാൻ ദക്ഷിണേന്ത്യയിലാണല്ലോ ആണല്ലോ ജനിച്ച് വളർന്നത് പിന്നെ എന്റെ വീട്ടിലായാലും അച്ഛനായാലും അമ്മക്കായാലും മക്കള്ക്കായാലും അവർക്ക് ബിരിയാണി അതുപോലെതന്നെ സദ്യ സദ്യയില് മോന് ആയാലും മോള്ക്ക് ആയാലും പുളിയിഞ്ചിയൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് പിന്നെ അവര്ക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെതന്നെ വൈകുന്നേരങ്ങളില് രാവിലെ സ്കൂളില് പോകുന്ന സമയത്ത് തന്നെ ഇന്ന് എന്താണ് അമ്മ വൈകുന്നേരം നാല് മണിക്ക് പലഹാരം എന്നാണ് അവര് ചോദിക്കുക അപ്പോള് അവര് വരാനാവുന്ന സമയത്തേക്ക് ഉണ്ണിയപ്പോ അല്ലെങ്കില് പഴംപൊരിയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും പിന്നെ രാവിലത്തെ ഭക്ഷണം എന്നുപറഞ്ഞാല് ചില ദിവസങ്ങളില് ഇഡലി ആവും അപ്പോള് അയിക്ക് ചറ്റ്ണി ഉണ്ടാക്കും ചിലപ്പോള് പുട്ടാവും പുട്ടിക്ക് കടലക്കറി പിന്നെ ദോശ ഉണ്ടാക്കും അതുപോലെ പത്തിരി ഉണ്ടാക്കും മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആഹാരമെന്ന് പറഞ്ഞാല് പത്തിരിയും കടലക്കറിയും ആണ് മോള്ക്ക് ആണെങ്കില് ഇഡലി സമ്പാറ് അപ്പോള് അങ്ങനെ രാവിലത്തെ ഭക്ഷണങ്ങള് അങ്ങനെ ഉണ്ടാക്കും പിന്നെ രാത്രി പറഞ്ഞാല് മോന് ആയാലും മോള്ക്ക് ആയാലും അവര്ക്ക് മീന് അതു മീൻ വാങ്ങുന്നത് അത് പൊരിക്കണം അവര്ക്ക് അതുപോലെ സോയാബീന് പൊരിച്ചത് പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് ഇതൊക്കെയാണ് അവരുടെ ഇഷ്ട ഭക്ഷണങ്ങള് പിന്നെ വീട്ടില് അമ്മക്ക് പറഞ്ഞാല് അച്ഛന് അമ്മയ്ക്കൊക്കെന്ന് പറഞ്ഞാല് അവിയല് പിന്നെ അതുപോലെ മസാലക്കറി ഇതൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അപ്പോള് ഓണം വിഷു എന്ന് നോക്കാറില്ല അല്ലാത്ത സമയത്തുതന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നെയ്യപ്പം ചുടും പിന്നെ പിന്നെ അതുപോലെന്നെ ചപ്പാത്തി ചപ്പാത്തി അത് മോന് അതുപോലെ തന്നെയാണ് അവന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പലഹാരം ആണ്